ഫോട്ടോകളിലൂടെ ഇന്ത്യയെ കാണിക്കാനായി ഒരവസരം ലഭിച്ചാൽ ഞാനാദ്യം തന്നെ ഇന്ത്യയ്ടെ വടക്ക് മുതൽ തെക്കേയറ്റം വരെയുള്ള വിവിധതരം സംസ്കാരങ്ങൾ ഇന്ത്യയിലെ പുരാതന നിർമ്മിതികൾ ചരിത്ര സ്മാരകങ്ങൾ അങ്ങനെയുള്ള ആ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഏറ്റവും കൂട്തൽ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ കളെല്ലാം പബ്ലിക് ഡൊമെയ്നിൽ ലഭ്യമാകത്തക രീതിയിൽ പ്രദർശിപ്പിക്കും പിന്നെ ഇന്ത്യയിലെ പോലെ ലോകത്തേറ്റവും കൂടുതൽ വ്യത്യസ്ത സംസ്കാരം പുലർത്തുന്ന രാജ്യങ്ങൾ കുറവായതിനാൽ വിവിധതരം സംസ്കാരങ്ങൾ ഇങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ തുടങ്ങിയവയേ കുറിച്ചുള്ള അറിവ് കൂട്തൽ ലഭിക്കുന്നതിനായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കൂട്തല് ഉൾപ്പെടുത്തും പിന്നെ ഇന്ത്യയിൽ വിവിധ ഒര് ജനവിഭാഗങ്ങൾ വിശ്വസിക്കുന്ന വിവിധ മതങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ അവയോടനുബന്ധിച്ചുള്ള ചരിത്ര സ്മാരകങ്ങൾ തുടങ്ങിയവയെല്ലാം കളക്ട് ചെയ്ത് പ്രദർശിപ്പിക്കും പിന്നെ ഇന്ത്യയിലെ ഭൂ പ്രകൃതി സംബന്ധിച്ച് മഞ്ഞണിഞ്ഞ മേഖലകളും സമശീതോഷ്ണ മേഖലകളും സമതലങ്ങളും പർവ്വതങ്ങളും മരുഭൂമികളും കായലോരങ്ങളും കടൽ തീരങ്ങളും എല്ലാം ഞാൻ ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫി നടത്തും അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വ്യത്യസ്ഥങ്ങളായ ഭൂ പ്രകൃതികൾ ചിത്രീകരിച്ചിരിക്കുന്ന ഫോട്ടോകളായിരിക്കും പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് വിവിധ ജനവിഭാഗങ്ങളുടെ ആചാരങ്ങൾ മതാചാരങ്ങൾ ആഘോഷങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയിവയുടെ എല്ലാ ഫോട്ടോകൾ ഞാൻ എടുത്ത് സൂക്ഷിക്കും